ഹലോ ആരാ ഇത് അതേ ധന്വന്തരി മസാജ് സെൻ്ററാണ് ആ ആ പറയൂ മേടം ആ ഓക്കെ മേടം

ആ ഹ ഹ നടുവേദനയാണോ മേടം ഉദ്ദേശിക്കുന്നത് അ ആ ആ ആ മേടത്തിനിപ്പോൾ നടുവേദനയാണോ ഉദ്ദേശിക്കുന്നത് നടുവേദനയാണോ പ്രധാനമായിട്ടും ഉള്ളത് ആ ആ ആ ആ അതൊരു ഉഴിച്ചിലും തിരുമ്മലൊക്കെ ഉണ്ട് മേടം ഒരു മാസം ഉള്ള ഒരു കോഴ്സുണ്ട് ആ കോഴ്സ് എടുക്കുവാണെന്നുണ്ടെങ്കില് ഒരു മാസത്തേക്ക് നമ്മള് ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്ക് ഡയറ്റ് ഫുഡുണ്ട് പദ്യമുണ്ട് ഇതിനു മെയിനായിട്ട് നോൺ വെജ് ഫുഡൊന്നും കഴിക്കാനും പാടില്ല ആ അത് മേടം അത് ഒരു ഇരുപത് ദിവസമെങ്കിലും ഇല്ലാതൊരു കോഴ്സ് പൂർത്തിയാക്കാന് പറ്റ പറ്റത്തില്ല മേടം മേടം എങ്ങനെ എങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഇരുപത് ദിവസമൊന്ന് ഞങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് അത് ഒരു കോഴ്സ് പൂർത്തിയാക്കാന് പറ്റും ആ എങ്ങനെയാണ് മേടം അത് പാ അതിന് പറ്റുമോ അതിൻ്റെ ഫീസ് വരുന്നത് മേടം മുപ്പതിനായിരം രൂപയാണ് ഒരു മാസത്തേക്ക് വരുന്നത് മേടം ഇരുപത് ദിവസത്തേക്കായതുകൊണ്ട് ഒരു ഇരുപത്തയ്യായിരം രൂപയില് റൌണ്ട് ചെയ്ത് എടുക്കാം അപ്പഴ് ഇരുപത്തയ്യായിരം രൂപ ഫീസ് അതിനിടക്ക് മേടം വരൂ ഡോക്ടറിൻ്റെ ചെക്കപ്പുണ്ട് നമുക്ക് ഉഴിച്ചിലുണ്ട് തിരുമ്മലുണ്ട് ധാരയുണ്ട് കിഴിയുണ്ട് സ്റ്റീം ബാത്തുണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് നമ്മുടെ വൈദ്യശാലയിൽ വന്ന് ഇരുപത് ദിവസം നിങ്ങള് താമസിക്കണം ബൈസ്റ്റാൻഡർ ഒന്നും വേണ്ട ആ ബൈസ്റ്റാൻഡർ ഒന്നും വേണ്ട ഒറ്റയ്ക്ക് മതി ഇവിടെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് മേടം ഇങ്ങ് വന്നാൽ മതി ഞങ്ങള് നോക്കിക്കൊള്ളാം സ്റ്റീം അത് അതെല്ലാം ഒരുമിച്ചൊരു കോഴ്സായിട്ടാണ് മേടം ഇരുപത്തയ്യായിരം രൂപയിൽ അതെല്ലാം നടക്കും ആ രാവിലെ പുലർച്ചെ എഴുന്നേക്കണം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ചൂട് ക കാപ്പി തരും കാപ്പി എന്ന് വെച്ചു കഴിഞ്ഞാല് ചു പച്ചമരുന്നുകള് ചുക്കൊക്കെ ഇട്ട് ശർക്കര ഇട്ട് ഒരു കാപ്പിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നടുവേദനയ്ക്ക് ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങള് ചെയ്യുന്നത് മസ്സാജാണ് മേടം ഉഴിച്ചില് പിഴിച്ചില് നല്ല ശരീരമൊക്കെ ഉടച്ച് വിട്ടുള്ള പിഴിച്ചിലൊക്കെ ഉണ്ട് ആ പറഞ്ഞോളൂ മേടം അത് അത് ആത് അതിൻ്റെ പ്രത്യേക അതിന് വേണ്ടി ഡോക്ടർ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറിൻ്റെ കൺസൾട്ടൻസി ഉണ്ട് അത് ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിൽ മാത്രമേ ഇതെല്ലാം നാം ചെയ്യത്തുള്ളൂ അതില് പരിചയ സമ്പന്നരായ നേഴ്സുമാരും എല്ലാവരും ഉണ്ട് തിരുമ്മുകാര് എല്ലാവരും ഉണ്ട് അതനുസരിച്ച് ചെയ്യത്തുള്ളൂ രോ രോഗാവസ്ഥ മേടത്തിൻ്റെ രോഗാവസ്ഥയെല്ലാം ച ചോദിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുള്ള തിരുമ്മലായിരിക്കും ഞങ്ങള് ചെയ്യുന്നത് ആ അ ആ പുലർച്ചെ എഴുന്നേറ്റുള്ള ധാരയുണ്ട് കിഴിയുണ്ട് പിഴിച്ചിലുണ്ട് ഉഴിച്ചിലുണ്ട് അതെല്ലാം കഴിഞ്ഞ് ചിട്ടയോടുള്ള വ്യായാമങ്ങളും എല്ലാം ഉണ്ട് മേടം ഇരുപത് ദിവസത്തേക്ക് മേടത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല സുഖകരമായിട്ട് പോകാൻ സാധിക്കും ഹ്മ് ആ മേടം എന്തു പറയുന്നു ആ തീർച്ചയായിട്ടും മാറും മേടം ആയുർവേദത്തിൽ വിശ്വസിച്ചാൽ മതി ആയുർവേദം നമുക്ക് ശരീരത്തിന് വളരെയേറെ ഗുണപ്രദമായിട്ടുള്ള കാര്യമാണ് ഒരുപാട് രോഗികൾ ഇവിടെ വന്ന് ചെ കഴിവ് ചെ വന്നിട്ട് സുഖമായിട്ട് പോയിട്ടുണ്ട് ആ ഓക്കെ മേടം തിങ്കളാഴ്ച വന്നോളൂ ആ ഓക്കെ ഓക്കെ ഓക്കെ